ആളുകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് റെഡിമേഡ് വസ്ത്രങ്ങളാണ് അതാണേപ്പിന്നെ നമുക്ക് ഒന്നും നോക്കണ്ട കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എപ്പം വേണേൽ ഓടിപ്പോയി മേടിച്ചോണ്ട് വന്ന് അപ്പം തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മൾ അവിടെ എങ്കിലും കൊടുത്ത് തുന്നിപ്പിക്കുന്നത് ആണെങ്കിൽ അത് തുന്നലുകാരുടെ സമയം നോക്കി അവരുടെ സമയം ഒക്കെ നോക്കി എപ്പോഴാണ് കിട്ടുന്നത് ചിലപ്പം ഒരു ആഴ്ച്ച രണ്ട് ആഴ്ച്ച ആ ഒരു ആഴ്ച്ച അങ്ങനെ നാളുകൾ കഴിഞ്ഞേ നമുക്ക് അത് കിട്ടോള്ളു പെട്ടെന്ന് നമ്മൾ ഒരു ഡ്രസ്സ് മേടിക്കുമ്പോൾ മൻഷ്യനും കുട്ടികളും സ്ത്രീകളും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന അത് വാങ്ങിക്കൊണ്ട് വരുമ്പം തന്നെ നമുക്ക് പിറ്റേ ദിവ്സം ഇട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പം നമ്മൾ അത് വെച്ചിട്ട് കുറെ നാൾ കഴിഞ്ഞ് കിട്ടുന്നതിനോട്ട് നമുക്ക് താൽപ്പര്യമി ല്ല അത്കൊണ്ട് റെഡിമേഡ് വസ്ത്രമാണ് ശരി അത് നമ്മൾ ഇന്ന് പോയി മേടിച്ചോണ്ട് വന്നു നാളെ തന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പാട്ടും അതാണ് ഇന്നത്തെ കാലത്താൾക്കാരേറ്റോം ഇഷ്ടപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുക തയ്ക്കാൻ കൊടുത്ത് തുന്നി കിട്ടുമ്പം അത് നാളുകൾ അനുസരിച്ച് അവരുടെ സമയത്തിന് തുന്നി കിട്ടുമ്പം തന്നെ അതിൻ്റെ പുതുമ എല്ലാം പോയി കുറെ നാളുകൾ കഴിഞ്ഞാണ് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുക അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അത്കൊണ്ട് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് തന്നെ റെഡിമേഡ് വസ്ത്രാണ് ചുരിദാറായിട്ടും പിന്നെ പിള്ളാരുടെ കിഡ്സിൻ്റെ ഉട്പ്പ്കളൊക്കാണേലും അങ്ങനെ ആണിഷ്ടപ്പെട്ന്നത് നമ്മക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ലേഡീസ് ഐയ്റ്റം കുറെ ഉണ്ട് തുന്നി മാത്രം എടുക്കുന്നത് അപ്പം അങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കാണ് അപ്പം റെഡിമേഡ് വസ്ത്രങ്ങൾക്കാണ് ഇന്ന് വിപണയിൽ ഏറ്റോം വലിയ ഡിമാൻറ്റെന്നാണ് എനിക്ക് പറയാൻ